ലോകം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനു ഒരു മികച്ച ഉദാഹരണം തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ് നമ്മളാദ്യം സമുദ്രത്തിൽ നിന്ന് മനുഷ്യർ ഉണ്ടായെന്നു പറയുമ്പോൾക്കൂടി ആ മനുഷ്യന് ഒരു തരത്തിലുള്ള അറിവോ വിജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല അതേ ആ രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്നിട്ടാണ് ആദ്യം മനുഷ്യൻ തീ ചക്രം പോലുള്ള വസ്തുക്കൾ കണ്ടുപിടിച്ചത് ആ മനുഷ്യർ അന്ന് കണ്ടുപിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് ലോകം നല്ല രീതിയിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ മനുഷ്യൻ്റെ മനുഷ്യനിർമ്മിത പേടകങ്ങളിൽ സൂര്യനിലും ചന്ദ്രനിലും ചൊവ്വയിലും വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ലോകം പരിണമിച്ചുകൊണ്ടുതന്നെ ഇരിക്കുകയാണ് അതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല